ആ അതെ ആ ആ ഓക്കെ പറഞ്ഞോളൂ ട്രഡീഷണൽ ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മളുടെ കേരളത്തിൽ ഉള്ള ടൈപ്പ് സാധാരണ ഫുഡ് കാര്യങ്ങളൊക്കെ പോരെ അതായത് കേരളത്തിലെ സാധാരണ ടൈപ്പ് ഫുഡ് കാര്യങ്ങൾ ഒക്കെ പോരേന്ന് നമുക്ക് ഇപ്പം പുട്ട് ഉണ്ട് അപ്പം അപ്പം പുട്ട് പിന്നെ ചിക്കൻ സ്റ്റ്യൂ പിന്നെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി തരും ഇടിയപ്പം ഉണ്ട് ഇതന്നെ ഇടിയപ്പം ചിക്കൻ കറി ഉണ്ട് ഇല്ലെങ്കിൽ ഇടിയപ്പം കടലക്കറി ഉണ്ട് പുട്ടും കടലക്കറി ഉണ്ട് പിന്നെ എന്താ മസാല ദോശ ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ഏതാണോ വേണ്ടത് അത് നമ്മൾ സെറ്റ് ആക്കിത്തരാം അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉണ്ട് മാഡത്തിന് ഏതാണോ വേണ്ടത് നമ്മൾ റെഡിയാക്കി തരും അത് ഒരു ഇപ്പോൾ നിങ്ങൾ എന്നാണോ ഫംഗ്ഷൻ വച്ചേക്കുന്നത് എന്നാണ് ഫംഗ്ഷൻ വെച്ചേക്കുന്നത് ട്വൻറ്റി ഫൈവിനാ അതിന് മുന്നെ നിങ്ങൾ ഒന്ന് ഇവിടെ വന്നിട്ട് അഡ്വാൻസും ചെയ്യണം പിന്നെ ഏതൊക്കെയാണ് സാധനം വേണ്ടതെന്ന് ഉള്ള ഓർഡറും തരണം കാരണം അതിന് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വേണല്ലോ ആ അപ്പം അതും കൂടി ഒന്ന് തന്ന് കഴിഞ്ഞാൽ മാത്രമേ അപ്പവും ചിക്കൻ സ്റ്റ്യൂ അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നൂറ്റൻപത് പേർക്കാണോ ആ ഓക്കെ റെഡിയാക്കി തരാം കുഴപ്പം ഒന്നും ഇല്ല ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ശരി ആ ഓക്കെ